ഞങ്ങളുടെ വില്ലേജിൻ്റെ പേര് പൂവം എന്നാണ് ചെറിയൊരു വില്ലേജാണ് ഞങ്ങളുടേത് സിറ്റിയിൽ നിന്നും വളരെ ദൂരെയാണ് ഞങ്ങളുടെ ഈ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പ്രത്യേകിച്ച് ഒരു സംരംഭവും ഇല്ല ഇവിടെ ഉള്ളത് എന്നു ചോദിച്ചാൽ ഇവിടെ ഉള്ളതു തന്നെയാണ് വെച്ചാൽ ഒരു ഹെൽത്ത് സെൻ്ററും ഒരു സ്കൂളും മാത്രമേയുള്ളൂ

അതുകൊണ്ട് പുതിയ സംരംഭമായിട്ട് ഞങ്ങൾക്കു ചെയ്യാം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതു വെച്ചാൽ ഒന്ന് ആട് വളർത്തുക

ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സോപ്പ് നിർമ്മാണ പണികളോ അല്ലെങ്കിൽ പാത്രം കഴുകുന്ന ലിക്വിഡുണ്ടാക്കുക ഇതാണ് ഞങ്ങൾ പുതുതായിട്ടു തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതിലൂടെ ഉണ്ടാകുന്ന നേട്ടം എന്നു വെച്ചാൽ കൂടുതലും കുടുംബിനികളായ സ്ത്രീകളെയാണ് ഞങ്ങൾ ഇതിൽ ഞങ്ങൾ ടാർഗറ്റിട്ട് വെച്ചിരിക്കുന്നത് കൂടാതെ വിധവകളായ സ്ത്രീകളെയും ഇതിൽ പല നേട്ടങ്ങളുണ്ട് ഒന്ന് അവർക്ക് അവരുടെ ഒരു വരുമാന മാർഗം കാണാൻ നേടാൻ സാധിക്കും പിന്നെ ഒന്ന് അവരുടെ ഒരു സമയം പോക്കലെന്നും പറയാം കൂടുതലായിട്ടും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്ത്രീകൾക്കു സ്വന്തം കാലിൽ നിൽക്കാനും ദൈനംദിന ജീവിതത്തിന് ഈ വരുമാനം അവർക്കുപകരിക്കും കൂടാതെ ആട് കൃഷി എന്നുപയ് ഒന്ന് ഉദ്ദേശിക്കുന്നതു വളരെ ചീപ്പായിട്ടുള്ള ഒരു പണം മുടക്കൽ സ സംവിധാനമാണിത് ഇവിടെത്തന്നെ ഒത്തിരി പച്ചിലകളും പച്ചപ്പാടങ്ങളും ഉള്ള സ്ഥലമാണ് ഞങ്ങളുടെ ഈ വില്ലേജെന്നു പറയുന്നത് കൂടാതെ

തീറ്റ എടുക്കണം അല്ലെങ്കിൽ തീറ്റ പച്ച പച്ചിലകൾ കൂടാതെ തീറ്റകൾ കൊടുക്കണമെങ്കിൽ കുറച്ചു പണം മുടക്കലിലൂടെ നമുക്ക് വലിയ കാര്യം നേടാൻ സാധിക്കും ഇതിൽ നിന്നുണ്ടാക്കുന്ന വരുമാനം പറയാൻ പറ്റാത്തതാണ് കാരണം ഒന്നിൽ നിന്ന് നമുക്ക് ഒൻപതെണ്ണത്തെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ആട് കൃഷി പെട്ടെന്ന് പെറ്റു പെരുകി നമുക്ക് ഇതിനെ സ്വന്തം ആവശ്യത്തിനു പാലെടുക്കാൻ പറ്റും വീടാവശ്യത്തിനുപയോഗിക്കാം കൂടാതെ ഇതിനെ കൊല്ലുന്നതിനോ അല്ലെങ്കിൽ കറി വെക്കുന്നതിനായിട്ട് നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാനും സാധിക്കുന്നതൊന്നാണ് പിന്നെ മറ്റു സംരംഭം ഞങ്ങൾ പറഞ്ഞതെന്നു വെച്ചാൽ അതു വഴി ഒരു തരത്തിൽ നമുക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് അവരുടെ ഒരു നേരത്തെ കഞ്ഞി കുടിക്കുന്നതിനുള്ള വരുമാനം അവർക്ക് നേടി എടുക്കാൻ സാധിക്കും അങ്ങനെ സ്ത്രീകൾക്ക് ഒരു കൈത്തൊഴിലാകുകയും കഴിയുന്ന എല്ലാ വിധവകൾക്കും കുടുംബിനികളായ സ്ത്രീകൾക്കും ഒരു ജോലി നേടി കൊടുക്കാനും

ഒരു പരിധിവരെ ദാരിദ്ര്യത്തെ നേരിടാൻ നമുക്കു സാധിക്കും ഉണ്ടാകുന്ന സാധനങ്ങൾ വീടുക വീടു തോറും കൊണ്ടു കൊടുക്കാനും പിന്നെ വാഹന സൗകര്യം ഉള്ളതു കൊണ്ട് സിറ്റികളിൽ കൊണ്ടു കൊടുക്കാനും ഒക്കെ സാധിക്കും അങ്ങനെ നല്ലൊരു വരുമാനം നേടാനും നമുക്ക് ഈ പുതിയ സംരംഭത്തിലൂടെ സംരംഭത്തിലൂടെ സാധിക്കുമെന്നു വിശ്വസിക്കുന്നു